ഹലോ സ്വിഗ്ഗിൻടോഫീസ്സല്ലെ ഞാൻ ഭക്ഷണം ഓഡെർ ചെയ്തിരുന്നുട്ടൊ പത്ത് പൊറേട്ടേം ചിക്കങ്കറിയൊക്കെ ഇതുവരെ കിട്ടീട്ടില്ല എന്തിത്ര നേരം വൈക്ണത് ഇൻങ്കിവ്ടെ വിര്ന്ന് കാരക്കെ വന്നിട്ട് അപ്പോൾ ഓൽക്ക് കൊടുക്കാൻ വേണ്ടീട്ടാണ് ഞാൻ ഓഡെർ ചെയ്തത് ഇത്രെ നേരം വൈക്ണതെന്താ ഇങ്ങളെവിട്ന്നാണ് ഇതക്കെ വാങ്ങണത് പെട്ടന്ന് എത്തിച്ച് തരണം എന്താണിപ്പം ഞാൻ ചെയ്യേണ്ടത് ഏത് ഹോട്ടൽന്നാണ് നിങ്ങൾ വാങ്ങാണത്തെന്നോക്കെ എത്ര സമയെട്ക്കും ഇനി കിട്ടാൻ ഞാനൊരു വിരുന്നുരൊക്കെ വന്നപ്പോൾ ഓൽക് കൊട്ക്കാൻ വേണ്ടീട്ടന് ഓഡ്റ് ചെയ്തത് ഓഡ്റ് ചെയ്തിട്ടിപ്പോൾ ഒരര മണിക്കൂറൊക്കെ ആയിന് ഇത് വരെ എത്തീട്ടില്ല ഇങ്ങൾ ഓഡ്റ് ചെയ്യണ സമയത്തിന്നോട് ഏകദേശം അര മണിക്കൂറിൻടുള്ളിൽ എത്തുംന്ന് പറഞ്ഞതായിരുന്നു ഇപ്പം അരമണിക്കൂറൊക്കെ ആവാനായി ഇതുവരെ എത്തീട്ടില്ല ഇനിയെത്ര ടൈമെട്ക്കും കിട്ടാൻ പെട്ടന്ന് വര്വോ എന്താണ്ള്ളതെന്നൊക്കെ ഒന്ന് പറയു ഇൻക്ക് വിരുന്നുകാർ വന്നോൽക്ക് കൊടുക്കാൻ വേണ്ടീട്ടാണ് അപ്പോവരിവിടെ കാത്ത്ക്കാണ് ഞാൻ വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കീട്ടുവില്ല അപ്പോൾ എത്ര സമയം കൊണ്ട് കിട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് അര മണിക്കൂറൊക്കെ അല്ലെ ഇങ്ങളെ ഡെലിവറി സമയം പറഞ്ഞത് എന്നിട്ടതക്കെ കഴിഞ്ഞല്ലൊ ഇപ്പൊ ഇതുവരായിട്ട് വന്നിട്ടില്ല എന്താണെത്താത്തത് എത്രേം പെട്ടന്ന് എത്തിക്കാൻ നോക്കണം